നമ്മുടെ നാട്ടിൽത്തന്നെ ഒരുപാട് ചെറിയ ചെറിയ സംരംഭങ്ങൾ ഉണ്ട് ഒന്നാമത്തേതുതന്നെ മെസ്സുകൾ മെസ്സ് വനിതമെസ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ചെറിയ ഒരു സംരംഭമാണ് അതുപൊലെതന്നെ നമ്മളിപ്പോൾ എന്താ പറയുക കടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ഉണ്ണിയപ്പം അതുപോലെതന്നെ അതൊക്കെ ചെറിയ ചെറിയ സംരംഭങ്ങളായിട്ട് തുടങ്ങുന്ന കാര്യങ്ങളാണ് വീട്ടിൽ തന്നെ ആക്കാൻ പറ്റുന്നത് അതിലൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മള് കറക്ടായിട്ട് ഭക്ഷണം ഉണ്ടാക്കണം ഒരു മായമോ അങ്ങനെ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുക പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ ചീത്ത വസ്തുക്കളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാണ്ടാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് പക്ഷെ ഇപ്പോഴത്തെ ഹോട്ടലുകളിലായാലും മെസ്സുകളിലായാലും മണവും രുചിയും ഒക്കെ വരാൻ വേണ്ടിയിട്ട് അവരൊരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചേർക്കുന്നുണ്ട് അതു നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെ ചേർക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ മായം ചേർത്തിട്ടു തന്നെയാണ് കൂടുതലായിട്ടും വരുന്നത് പിന്നെ നല്ല ഭക്ഷണങ്ങളൊക്കെയാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് അവർ ഓരോന്നും ചേർക്കുന്നതു തന്നെ ചെറിയ ചെറിയ സംരംഭങ്ങൾ ഒരുപാട് ഇപ്പോൾ ഉണ്ട്